ഇതുവരെ അങ്ങനെ അജ്ഞാതമായി പറക്കുന്ന വസ്തുക്കളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കാറുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു ക്യുരിയോസിറ്റി ഉള്ള പോലെ എനിക്കും ക്യുരിയോസിറ്റിയുണ്ട് അതുപോലെ ഞാൻ നോക്കാറുണ്ട് എങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ ആ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആവുന്ന കാണാം ഇന്ന സാധനങ്ങളെ കണ്ടു അത് അന്യഗ്രഹ ജീവികളാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്ക പറഞ്ഞ് ഒരു താവളം ഉണ്ടെന്നൊക്ക ഇങ്ങനെ പറയുന്ന കേൾക്കാം പക്ഷെ അതിനൊന്നും സത്യം ഒണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിങ്ങനെ ഇതുവരെ മുകളിലൊന്നും അജ്ഞാതമായി പറക്കുന്ന കണ്ടിട്ടില്ല എന്തെങ്കിലും പറന്നാൽ തന്ന വല്ല പക്ഷിയോ കിളിയോ കുരുവിയോ വല്ലതും ആയിരിക്കും പക്ഷെ ആ എന്തായാലും അവർ കാണുമെന്നുള്ളതിന് യാതൊരു സംശയം ഇല്ല നമ്മളെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ലിമിറ്റിന് ഒരു ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇല്ല എന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരാകുന്നത് നമുക്ക് അവിടം വരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെ യൂണിവേഴ്സ് എന്നു പറയുന്ന ഭയങ്കര വാസ്റ്റാണ് എത്ര യൂണിവേഴ്സുകൾ ചേരുന്ന ചേരുന്ന ഇത് എന്ത് സ്റ്റാർസ് അതിൻ്റെ ചുറ്റും ഗ്രഹങ്ങൾ എങ്ങും നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് ഒരിക്കലും അവരില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും അവരെവിടെയെങ്കിലും കാണും ഉറപ്പായിട്ടും ചിലപ്പം നമ്മുടെ രൂപത്തിൽ തന്ന ഉള്ളവരെ ആയായിരിക്കാം ചിലപ്പോൾ ഇതുപോലേ അല്ലായിരിക്കും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രൂപത്തിലുള്ളവർ ആയിരിക്കും അങ്ങനെയുള്ളവർ ആയിരിക്കും അങ്ങനെയുള്ളവർ ആയിരിക്കാം ഒരുപക്ഷെ പക്ഷെ എന്തായാലും അവരുണ്ട് അവർ ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല സൈൻ്റിഫികലി ആണെങ്കിലും ഒന്നിനും ഒരു തെളിവില്ലെങ്കിലും പക്ഷെ അവരുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല എന്തായാലും അവർ കാണും അതുറപ്പാണ് എന്തായാലും കാണും അത് ഇത്രയും വാസ്റ്റായുള്ളൊരു ലോകത്ത് എന്തും കാണുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്തായാലും കാണും ഇതുവരെ ഞാൻ അങ്ങനെയൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ പറയുന്നത് മാത്രല്ലല്ലോ നമ്മൾ ഈ ഇത്രയും ചെറിയ ലോകത്ത് എന്തുവരാൻ അതുപോലെ അല്ലല്ലോ ബാക്കിയെല്ലാം എന്തു കാര്യങ്ങളക്കെ സംഭവിക്കുന്നുണ്ട് ഇതുവര കണ്ടുപിടിക്കാത്ത എന്തൊക്ക പുതിയത് കണ്ടുപിടിച്ചു അതും കണ്ടുപിടിച്ചിട്ടും വളരെ എന്ത് ഈ ലോകത്തിലുള്ളതിൻ്റെ അങ്ങ് സൈഡിൽ മാത്രം നിർത്താവുന്ന രീതിയിലല്ലേ നമ്മളിതുവരെ എത്തിയിട്ടുപോലും ഉള്ളു ഇപ്പോൾ ഉറപ്പായിട്ടും അവർ കാണും എന്നാണെൻ്റെ വിശ്വാസം വിശ്വാസമല്ല അവരെന്തായാലും കാണും ഈ നമ്മുടെ ആദ്യമേ നമ്മുടെ ലൈഫുണ്ടാകാൻ എടുത്ത സാഹചര്യം ഒക്കെ ഇവിടെ മാത്രം അല്ലല്ലോ വേറെ എല്ലായിടത്തും കാണാൻ സാധ്യത ഉണ്ട് ഇപ്പം പുറത്ത് വെള്ളം കണ്ടുപിടിക്കുന്നു വേറെ വെള്ളം കണ്ടുപിടിക്കുന്ന അതുപോലെ ലൈഫും ഒരു ദിവസം കണ്ടുപിടിക്കും പക്ഷെ അവർ നമ്മളെപ്പോല ഒന്നുകിൽ നമ്മളെക്കാളും വളരെയേറെ ഡെവലപ്പ്ഡ് ആയിരിക്കും പരിണാമം സംഭവിച്ച് ഭയങ്കര വലിയ രീതിയിൽ ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ അവർ പരിണാമം സംഭവിച്ച് കൊണ്ടിരിക്കുന്നവരായിരിക്കും അതുപോലെ ആയിരിക്കും അത് നമുക്ക് ഇപ്പം കറക്റ്റ് അറിയില്ല അവരെ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ